നമസ്ക്കാരം എൻ്റെ പേര് ആതിര ആണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വിവാഹമോചനം കഴിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ പാൻകാർഡിൻ്റെ പേര് പഴയ നാമത്തിലേക്ക് മാറ്റണം എൻ്റെ പഴയ നാമം ആതിര ദിലീപ് എന്നായിരുന്നു അപ്പം വിവാഹം കഴിഞ്ഞു ആതിര ശശി എന്നായിരുന്നു ആതിര ശശി മാറ്റി ആതിര ദിലീപെന്ന് വേണം മാറ്റേണ്ടത് അപ്പോൾ അതിനു വേണ്ട നിയമ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയണം അപ്പോൾ അത് ഓൺലൈനിൽ ആണോ ചെയ്യേണ്ടത് അതോ നേരിട്ട് വന്നാണോ ചെയ്യേണ്ടത് എന്ന് പറയണം പിന്നെ ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ല നിയമ വിദഗ്ദൻ്റെ മാർഗനിർദേശം നേടാനാണ് ഞാൻ കൂടുതലും താല്പര്യപ്പെടുന്നത് കാരണം ഇതിൽ മറ്റൊരു തെറ്റുകുറ്റങ്ങളൊന്നും വരുത്താൻ എനിക്ക് താൽപര്യമില്ല വീണ്ടും ഇതിൻ്റെ പുറകെ നടക്കാനും എനിക്ക് താൽപ്പര്യമില്ല അതുകൊണ്ട് ക്ര്യത്യമായിട്ടുള്ള വിവരങ്ങൾ വിവരങ്ങൾ നൽകുന്ന ഒരു നല്ലൊരു നിയമ വിദഗ്ധനെ തന്നെ എന്നെ ഒന്നു പരിചയപ്പെടുത്തി